ഹലോ കൊച്ചിൻ ബേക്കറി ആ ഹലോ സാർ പറഞ്ഞോളൂ ആ ഓക്കേ സാർ എന്ത് പർപ്പസിനായിരുന്നു സാർ ആണല്ലേ സാർ ഏത് ഫ്ലേവറാണ് വേണ്ടത് വാനില ചോക്ലേറ്റ് അങ്ങനെ ഏതെങ്കിലും ഫ്ലേവർ വേണോ ആ വാനിലയുണ്ട് ചോക്ലറ്റുണ്ട് സ്ട്രോബെറിയുണ്ട് അതുപോലെന്നെ ആ പിന്നെ ഒരു ബെർത്ഡേ എഡിഷനുണ്ട് സ്പെഷൽ കേക്ക് ആണ് ഒരു പുഡിങ് ആണ്

വൺ കെ ജി ആണെങ്കില് തൗസൻഡ് ആൻഡ് ടു ഹൻഡ്രഡ് ആയിരത്തി ഇരുന്നൂറാണ് സാർ വൺ കെ ജി വരുന്നത് ഹാഫ് കെ ജി ആണെങ്കില് നമുക്ക് എഴുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതിന്റെയകത്തു നമ്മള് ആ സാർ അത് ബർത്ത്ഡേ എഡിഷനു വേണ്ടി ചെയ്യുന്നതാണ് സാർ അതിന്റെയകത്ത് ഡക്കറേഷൻസുണ്ട് അതുപോലെ തന്നെ എഴുത്തുകള് വരുന്നുണ്ട് കാൻഡിൽ അങ്ങനെ എല്ലാം ഒരു കിറ്റായിട്ടാണ് സാർ തരുന്നത് അത് അതിന്റെയകത്ത് ഈ നമുക്ക് ഈ എന്താണ് പറയുന്നത് ഈ പോപ്പറുണ്ട് അതുപോലെ തന്നെ ഈ കാൻറില് ലൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെതന്നെ അതിന്റെയകത്തിങ്ങനെ ഓപ്പൺ ചെയ്തുവരുന്ന രീതിയിലുള്ള തിരികളുണ്ട് അങ്ങനെ ഡക്കറേഷൻസൊക്കെ വരുന്നുണ്ട് സാർ എല്ലാം കൂടെ ചേർത്തിട്ടാണൊരു പാക്കേജ് വരുന്നത് സാർ നമ്മളിത് ഹോം ഡെലിവറി ചെയ്യും സാർ സാറിൻ്റെ അഡ്രസ്സ് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഹോംമില് ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇല്ല ഇല്ല ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് റെഡ് വെൽവെറ്റുണ്ട് സാർ അതുപോലെ തന്നെ പൈനാപ്പിളുണ്ട് ഓറഞ്ചുണ്ട് അങ്ങനെ എല്ലാ ഫ്ളേവറും എല്ലാ ഫ്രൂട്സ്ൻ്റെയും ഫ്ളേവര് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓൺ പ്രൊഡക്ഷനാണ് നമ്മള് സ്വന്തമായിട്ട് ബേക്കെയ്യാണ് ആ നാച്ചുറൽ ഫ്ളേവറാണ് ഉപയോഗിക്കുന്നത് മാംഗോ ആണെങ്കില് ഒറിജിനൽ മംഗോയുടേതു തന്നെ എടുക്കും പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിള് തന്നെ അങ്ങനെ അങ്ങനെ ഓരോ ആ അല്ല നമ്മളത് ഓൺ ബൈ ഫ്രൂട്സിൽനിന്നും ഡിബൈറ്റെയ്യാണ് മ്

ആ നമ്മക്കതിനുതന്നെ യൂണിറ്റ് ഉണ്ട് സാർ അങ്ങനെ ചെയ്യാനായിട്ടുതന്നെ നമ്മള്ക്ക് എട്ട് സ്റ്റാഫാണ് സാർ ഉള്ളത് ആ സാർ നമ്മളിത് പല ബിസിനെസ്സുണ്ട് നമ്മള് കേക്ക് മാത്രമല്ല ബേക്കറി അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടിയിട്ടാണേ ടീ ഷോപ്പുണ്ട് റെസ്റ്റോറന്റുണ്ട് അപ്പോള് അതിൻ്റകത്തൊരു പാർട്ട് ആണ് ഈ പറയുന്ന കേക്കിന്റെ സെക്ഷനൊക്കെ കേക്കിന്റെ കൂടെ നമുക്ക് വൈൻ സെർവെയ്യാം സാർ

ആ നമുക്ക് അതിനകത്തുള്ളത് ഗ്രേപ്പാണ് പ്രധാനമായിട്ടു വരുന്നത് ഗ്രേപ്പ് നാച്ചുറലാണ് അത് നമ്മള് നമ്മള് തന്നെ പ്രൊഡ്യൂസെയ്യുന്നതാണ് പുറത്തുനിന്നു മേടിക്കുന്നതല്ല നമ്മള് തന്നെ നമ്മുടെ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്തു കൊടുക്കുന്നതാണ് നമ്മള് കമ്പത്തുള്ള നമ്മുടെ ഒരു നമുക്കു തന്നെ അറിയാവുന്ന നമ്മുടെ ഒരു തോട്ടത്തില്നിന്നാണ് ഗ്രേപ്പ് എടുക്കുന്നത് അപ്പോള് അവര് അധികമായിട്ട് പെസ്റ്റിസൈഡ് യൂസ് ചെയ്യാത്ത രീതിയിലുള്ള ഗ്രേപ്പാണ് നമ്മള് കളക്ടെയ്യുന്നത് പിന്നെ തന്നെയുള്ള സീഡ്ലെസ്സായിട്ടുള്ള ഗ്രേപ്പാണ് കളക്ടെയ്യ്ന്നത് അതുകൊണ്ട് നമുക്ക് ഇല്ല ഇല്ല ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആ അപ്പോള് അത് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആണ് അപ്പോള് ഒരു ബോട്ടിൽ വൈനിതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ആ മതി സാർ സാര് വൈകിട്ട് കോൺടാക്ട് ചെയ്താല് മതി

മൂന്ന് അന്പത്തിയെട്ട് ഇപ്പോള്ത്തന്നെ കട്ടാവും ആ ഓക്കെ ഓക്കെ